വിദ്യാർത്ഥികൾ തുടർ വിദ്യാഭ്യാസത്തിനായി കേരളത്തിന് പുറത്തേക്കു പോകുവാനായി കൂടുതൽ ആഗ്രഹിക്കുന്നു കാരണം ഫ്രീഡം എന്തെന്ന് അവർക്കവിടെ ലഭിക്കുന്നു ആരുമാരും തമ്മിൽ ഒരു പുറത്തു പോകുന്നതിനോ അല്ലെങ്കിൽ മറ്റുള്ള കൂട്ടുകാരുമായി കളിച്ചു നടക്കുന്നതിനോ മാതാപിതാക്കളിൽ നിന്ന് അകന്നു നിൽക്കാനോ അവര് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അവർ തിരഞ്ഞെടുക്കുന്ന മേഖലകൾ ഏത് ആണെങ്കിൽപോലും വിദ്യാഭ്യാസത്തിനു ഉചിതമായ രീതിയിൽ എന്നാൽ കേരളത്തിൽ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും അച്ചടക്കം പോലുള്ള നിരവധി കർശന നിയമങ്ങൾ അവർ അനുസരിക്കേണ്ടതായി വരുന്നു അതിനാലാണ് മറ്റു വിദേശരാജ്യങ്ങൾ അല്ലെങ്കിൽ കേരളത്തിലേക്ക് പുറത്തേക്ക് പോകുവാൻ കുട്ടികൾ കൂടുതൽ താൽപര്യപ്പെടുന്നത് വിദേശത്ത രാജ്യങ്ങളിലാവട്ടെ തൊഴിലിനോട് പഠിത്തത്തോടൊപ്പം തൊഴിലും കണ്ടെത്താനുള്ള ഒരു പക്ക്വത മക്കളിലേക്ക് ആവർത്തിക്കുന്നു അവർ സ്വന്തം അധ്വാനിച്ചു പഠിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തേത് എന്നാൽ കേരളത്തിലതിനു മുൻതൂക്കം നൽകാത്തതിനാൽ വിദേശ രാജ്യങ്ങളിൽ അതിനുള്ള മുൻതൂക്കം അവർ കൊടുക്കുന്നതായി കാണുന്നു അതിനാലാണു കൂടുതൽ വിദ്യാർത്ഥികളും ഉന്നത പഠനത്തിനായി മറ്റു രാജ്യങ്ങളിലേക്ക് അല്ലെ മറ്റു മേഖലകളിലേക്ക് കൂടുതലായി പോകുന്നതായി സാധിക്കുന്നത്